സ്ത്രീകൾ കൂടുതലായിട്ട് ഈ സമൂഹത്തിൽ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അതായത് കൂടുതലായി നമുക്ക് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നത് അസമയങ്ങളിൽ പുറത്തിറങ്ങാൻ സാധിക്കയില്ല സന്ധ്യമയങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിലാണുങ്ങൾ ചെയ്യുന്നതിനൊപ്പം ഏതൊരു സാഹചര്യത്തിലും പുറത്തിറങ്ങിയാൽ അതിന് കളിയാക്കുന്നൊരു വിമർശിക്കുന്നവർ അല്ലെങ്കിൽ അവരെ വൃത്തികെട്ടരീതിയിൽ ആക്ഷേപിക്കുന്നവർ പിന്നവരെ ചൂഷ്ണം ചെയ്യുക അത് കുട്ടികളാണെങ്കിലും മുതിർന്ന സ്ത്രീകളാണെങ്കിലും പ്രായമായവരാണെങ്കിലും അവർക്കും ഒരേ അവസ്ഥ തന്നെയാണ് നേരിടേണ്ടിവരുന്നത് കേരളത്തിൽ അത് കൂടുതൽ തന്നെയെന്നു പറയാം മറ്റു സ്ഥലങ്ങളിലേ കുറേയൊക്കെ ഇപ്പം പുറത്തു പോകണ സ്ത്രീകളും അവരോടൊപ്പം പുരുഷന്മാരും ഞാ രാത്രീ സമയങ്ങളിൽ നടന്നാൽ അത്ര വലിയ ബുദ്ധിമുട്ടുകളനുഭവിക്കുന്നുണ്ടെന്ന് ഒന്ന് രണ്ടു സ്ഥലങ്ങളിൽ നിന്നു പോയിട്ട് എനിക്കു മനസ്സിലാക്കാൻ സാധിച്ചില്ല പക്ഷെ കേരളത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സന്ധ്യ മയങ്ങിയതിനു ശേഷം ഒരു ബെസ്സേൽ ട്രാവൽ ചെയ്യാൻ പറ്റുകേല അല്ലേ റെയിൽവേ സ്റ്റേഷനുകളോ ഓട്ടോ സ്റ്റാൻ്റുകൾ ടാക്സി സ്റ്റാൻ്റുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് നിൽക്കാനോ അല്ലെങ്കിൽ അവർ തന്നെ യാത്ര ചെയ്തു കഴിയുമ്പോൾ അവരേക്കുറിച്ച് അനാവശ്യമായ സംസാരങ്ങൾ വീട്ടിലുള്ളവർ നിന്ന ഭാഗത്തുന്നുമുണ്ട് പുറത്തുള്ളവരുടെ ഭാഗത്തുന്നുമുണ്ട് ഇത് ഇനിയും വളരെ നല്ല രീതിയിൽത്തന്നെ ഈ സമൂഹത്തിൽ സ്ത്രീസുരക്ഷ ഉറപ്പാക്കേണ്ട ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് പഴയകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും മുൻഗണനയും തുല്യമായിട്ട് നൽകിയിട്ടുണ്ട് അതു വളരെ നല്ലത് പക്ഷെ കുറച്ചുങ്കൂടി സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക രണ്ടാമത് തൊഴിലില്ലാതെ അനേക സ്ത്രീകളിപ്പോഴും തൊഴിലുറപ്പു പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽപ്പോലും അതിനു പോകാൻ സാധിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾ മീഡിയം സ്റ്റൈലിൽ താമസിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ആ നമ്മുടെ പഞ്ചായത്ത് പ്രദേശങ്ങളൊക്കെ ആകുമ്പം അവിടെ എന്തെങ്കിലും ചെറിയ കൈത്തൊഴിലുകളായിട്ടോ കമ്പ്യൂട്ടർ പരമായിട്ട് അറിവുള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെ മറ്റ് കാര്യങ്ങളോ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരു കൂട്ടായ്മ പോലെ കണ്ടെത്തി ചെയ്താൽ കുറച്ചും കൂടി പ്രയോജനപ്പെടും മീഡിയം പുറത്ത് അധികം പോകുന്നില്ലാ എങ്കിലും ആഗ്രഹമുള്ള അനേകം സ്ത്രീ ജനങ്ങളുണ്ട് അവരെയും കൂടി ഹെൽപ്പ് ചെയ്യത്തക്കവിധം ഉള്ള തൊഴിൽ സംവിധാനങ്ങൾ കൂടി നടപ്പാക്കാനുള്ള ഇതിലൂടെ പറയുന്നു